പക്ഷികളിൽ ഏറ്റവും ഭംഗിയുള്ള പക്ഷിയാണ് മയിൽ

നമ്മുടെ ദേശീയ പക്ഷിയും കൂടിയാണ് അവയേക്കാണാൻ നല്ല ചന്തമുണ്ട് മഴക്കാറുകൾ കണ്ടാൽ അവ പീലി വിടർത്തി നൃത്തം ചെയ്യും ആൺമയിലാണ് നൃത്തം ചെയ്യുന്നത് പെൺമയിൽ അവരെല്ലാം മരക്കൊമ്പിലാണ് താമസിക്കുന്നത് വലിയ ഉയരമുള്ള മരത്തിൽ പീലികൾ വിടർത്തി നൃത്തം ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പീലിക്ക് നല്ല നിറവും കളറും ഭംഗിയും ഉണ്ട് അത് പീലി വിടർത്തി നൃത്തം ചെയ്യുമ്പോൾ അതിൻ്റെ പീലികൾ കൊഴിഞ്ഞ് തോട്ടത്തിലെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് പെൺമയിൽ മുട്ടയിടും